ഹലോ ഒമാസ് റെസ്റ്റോറൻറ അല്ലേ ആഹ് എനിക്ക് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വേണമായിരുന്നു പറയട്ടെ നിങ്ങള് എഴുതിയെടുക്കുമോ രണ്ട് ഫുൾ ന്യൂഡിൽസ് നാല് ബിരിയാണി രണ്ട് ഷാർജാ ഷെയ്ക്ക് ഒരൽഫാം ഫുളള് ഒരു ഫ്രൈഡ്രൈസ് രണ്ട് ഫ്രഞ്ച് ഫ്രയിസ് ആഹ് ഇതൊക്കെ ഒരു മണിക്കൂറിനുള്ളില് എത്തിച്ച് തരണെ ആഹ് ആഹ് എന്റെ സ്ഥലം വരുന്നത് കൂത്തുപറമ്പ് തലശ്ശേരി റോഡിൽ ആറാം മൈലിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആറാം മൈലിൽ നിന്ന് ഇരുട്ടി റോഡിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് വളവിനുള്ള വീടാണ് അതിന്റെ ഇങ്ങേ അപ്പുറത്തായിട്ട് ഒരു കാരായി ബെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുണ്ട് തൊട്ട് ഇപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ട് സാഗര എന്നാണ് വീട്ടിന്റെ പേര് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഞാനാ വീട്ടി വീടിന്റെ മുമ്പ്തന്നെ ഉണ്ടാകു റോഡ് സൈഡിൽ തന്നെയാണ് വീട്

ഒരു മണിക്കൂറിനുള്ളിൽ എത്തിച്ച് തരാൻ നോക്കണം കെട്ടോ പെട്ടന്ന് തന്നെ എത്തിച്ച് തരണം വീട്ടില് പാർട്ടി വന്നിട്ട് വന്നിട്ടുണ്ടെ ശരി